ആ ചേട്ടാ ആ അല്ല കുറെ ദിവസമായി വരണമെന്ന് വിചാരിക്കുന്നു വിചാരിച്ചിരുന്നു ഇന്നാണ് വന്നത് നമുക്ക് ഒരു പ്ലാനുണ്ട് ഒരു വീട് സെറ്റാക്കാനുള്ള ഒരു പ്ലാനുണ്ടേ ആ നമ്മൾ ഇവിടെ കോതമംഗലത്ത് കുറച്ചൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഇരിപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ആ അപ്പോൾ ആ നമ്മള് ഉദ്ദേശിക്കുന്നത് ഒരു പഴയ ടൈപ്പ് പഴയ മോഡൽ ഒരു മന ആ മോഡൽ ഒരു വീട് സെറ്റാക്കാനുള്ള പ്ലാൻ ആണ് സ്ക്വർ ഫീറ്റ് ഒരു പത്ത് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആ ആപ്പോൾ ഒരു ആ ഒരു ലെവലിലുള്ള വീട് അതായത് ഈ വരിക്കാശ്ശേരി വരിക്കാശേരി മന ഇല്ലേ ആ അതിനിപ്പോൾ നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ മോഡൽ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്

സ്ക്വർ ഫീറ്റിനല്ലേ ആ അല്ലാ അതിൻ്റെ കുറച്ച് മോഡലുണ്ടെങ്കിൽ നിങ്ങള് എനിക്ക് അയച്ച് തന്നാൽ ഞാൻ നോക്കാമായിരുന്നു ആ അത് നിങ്ങളെ സൗകര്യം പോലെ കാണിച്ച് തന്നാൽ മതി ആ അതെ അതെ കാരണം ഞാൻ ഇവിടെ ഉണ്ടാവൂല്ല നമ്മള് ബിസിനസാണ് പുറത്താണെ അപ്പോൾ എപ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റൂല്ല മൊത്തത്തിൽ നിങ്ങൾക്ക് തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ അടുത്തേക്ക് വന്നത്

അതില് നമ്മള് ഏതാ നല്ലത് നിങ്ങളെ അഭിപ്രായത്തിൽ ഗ്രാനൈറ്റ് ആണോ ആ നമ്മള് പഴയ ഒരു രീതിയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനോട് ചേരുന്ന മട്ടിലുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ആ ജനലും വാതിലൊക്കെ നല്ല തേക്കിൻ്റെ തന്നെ നോക്കിയിട്ട് ചെയ്യാം ആ അതുപോലെ നമ്മളെ ഈ കൊത്തുപണികളൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഉള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റുമോ ഈ വാതിലിലിലൊക്കെ അതിൻ്റെ ഡിസൈൻസൊന്ന് നിങ്ങൾ എനിക്ക് കാണിച്ച് തരണം ആ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും അതായത് രണ്ട് മാസം അല്ലേ ആ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫണ്ട് നമുക്ക് അടുത്ത മാസം റെഡി റെഡി ആവും അപ്പോൾ അടുത്ത മാസം തുടങ്ങണ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറായി ആ അപ്പോൾ എന്തെന്ന് ആ പ്ലാൻ ആ വീട്ടിലേക്ക് നിങ്ങൾ നാളെ വരികയാണെങ്കിൽ നോക്കാം അപ്പോൾ നിങ്ങൾ കുറച്ച് ഡിസൈനും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാമല്ലോ ആ ഈ നാലുകെട്ട് മോഡൽ ആ ടൈപ്പ് ഒക്കെ അതിൻ്റെ കുറച്ച് വെറൈറ്റി ഉണ്ടെങ്കിൽ ഓക്കേ അങ്ങനെയാണെങ്കിൽപ്പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളും ഒന്ന് നിങ്ങളൊന്ന് പറയണം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫണ്ട് ഇറക്കാനാണേ ഓക്കേ അപ്പോൾ നിങ്ങൾ നാളെയൊന്നു വീട്ടിലേക്ക് വന്നാൽമതി ശരി ഓക്കേ ഒന്ന് വിളിച്ചിട്ട് ഇറങ്ങിക്കോളൂ